ആ ഞാൻ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നൊരു ഫുഡ്ഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത് ഡെലിവറി ആയി പക്ഷേ ചെറിയൊരു കംപ്ലയ്ൻ്റ് ഉണ്ടായിരുന്നു ആ ഓക്കെ എൻ്റെ പേര് രാഹുൽ മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയെട്ട് എഴുപത്തിയാറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ആ അതെ അതെ ആ രണ്ട് ചിക്കൻ ബിരിയാണി ആ ഡെലിവറി ആയി അതിൽ പക്ഷേ അത് ഫുഡ്ഡ് തണുത്തു പോയിട്ടുണ്ട്

അല്ല ഞാൻ ആ ഡെലിവറി ബോയീൻ്റടുത്തു പറഞ്ഞിരുന്നു അപ്പോൾ അവരു പറയുന്നത് ഷോപ്പിലേക്ക് വിളിച്ച് കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്താൽ മതി എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ എന്നാണ് അയാൾ പറഞ്ഞത്

അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫണ്ട് റീഫണ്ട് ചെയ്യണം ആ ഓക്കെ ട്വൻ്റി ഫോർ ഹവേഴ്സ്ന് ഉള്ളിലാണോ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു